ഹലോ ആ ജാസ്മിൻ ടീച്ചർ എന്നായിരുന്നു ഓ എന്നായിരിക്കുന്നു ആനിവേഴ്സറിയൊക്കെ അല്ലെ അതിൻ്റെ തിരക്കിലൊക്കെയാണ് പ്രോഗ്രാമ് എനിക്ക് കിട്ടിയിരിക്കുന്നത് യോഗ ഡാൻസാണ് അപ്പം ഞാൻ പിള്ളേരെ എല്ലാം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളു എല്ലാ ടീച്ചേഴ്സും വന്നു ഓരോ പ്രോഗ്രാമിന് പിള്ളേരെ വിളിച്ചതുകൊണ്ട് ഇപ്പം തപ്പി തപ്പി എടുക്കേണ്ട സമയമായി അതേന്നെ ഡാൻസിനൊക്കെ ആ അതെ ഡാൻസിനൊക്കെ എല്ലാവരും തന്നെ പിള്ളേർ എല്ലാവരും തന്നെ ആക്റ്റീവ് ആയതുകൊണ്ട് ഡാൻസിനൊക്കെ എല്ലാവരും പോയി പിള്ളേരെ കിട്ടാൻ ഇച്ചിരി പാടാണ് അതെ ഇതിന് കുറച്ചു കൂടുതൽ പിള്ളേരും വേണം ഒരൂ പത്ത് പതിനഞ്ച് പേരെങ്കിലും മിനിമം വേണം അതുകൊണ്ട് അതെയോ ആ എന്നത്തേക്കാണ് ആനിവേഴ്സറി ഫിക്സ് ചെയ്തേക്കുന്നത് എട്ടാം തീയ്യതി ആണല്ലേ ആ ഹാ രണ്ട് ആഴ്ച്ചേയേ ഉള്ളൂ കറക്റ്റ്

അതെ അതെ അയ്യോ സമയം കുറവാണ് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇഷ്ടം പോലെ പോർഷനും തീർക്കാൻ കിടക്കുവാണ് അത് ഇനി എപ്പം തീർക്കുമെന്ന് അറിയത്തില്ല അതെയോ ആ ഓ അങ്ങനെ അണെങ്കിൽ വലിയ ഉപകാരം അല്ലെങ്കിൽ എനിക്ക് തീരില്ല എനിക്ക് ആണെങ്കിൽ അതെ ഫിസിക്സും കൂടെ ഒക്കെ ആയതുകൊണ്ട് കുറേ ഉണ്ടല്ലോ എടുത്ത് അങ്ങനെ സ്പീഡിൽ തീർക്കാനും പറ്റത്തില്ല അവരെ ഒന്ന് മനസിലാക്കിക്കണമെങ്കിൽ തന്നെ പാടാണ് ആ അതെ അന്നേരം ഫുൾടൈം അവരുടെ പിള്ളേരുടെ കൂടെ നിന്നില്ലെങ്കിൽ ഉഴപ്പുകയല്ലേ ഉള്ളു സമയവും കുറവല്ലേ ആ ഒക്കെ ആ ആ പിന്നെ വേറെ എന്തെങ്കിലും പ്രിൻസിപ്പള് പറഞ്ഞായിരുന്നോ കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗ് എനിക്ക് അറ്റെൻഡ് ചെയ്യാൻ പറ്റിയില്ല അതെ അല്ലെ

ആ അത്രയേ ഉള്ളു അല്ലേ ആ ടീച്ചെറിന് എന്നെ ആദ്യമായതു കൊണ്ട് പ്രാഗ്രാമ് ആദ്യമല്ലേ ആ ആ ആ ആ

അതെ അല്ലേ അപ്പം നമ്മൾ പുറത്തു നിന്നാരേയും വിളിക്കേണ്ട കാര്യമില്ല അല്ലേ പേരൻസ് ഉണ്ടല്ലോ പിന്നെ ടീച്ചേഴ്സും അറിയാവുന്നവർ ഉണ്ടല്ലോ മേക്കപ്പൊക്കെ ചെയ്യുന്നത് ആ

അതെ അല്ലേ ആ

ആ അതെ അതുകൊണ്ട് എളുപ്പമുണ്ട് എല്ലാവർക്കും തന്നെ കാണുമല്ലോ ആ അതെ ആ ഞാൻ ഇവർക്ക് കരാട്ടെ പിള്ളേരുടെ ഡ്രെസ്സ് എടുക്കാമെന്ന് ഓർത്തു കൊണ്ടാണ് ഇരിക്കുന്നത് അതാകുമ്പം പിന്നെ വേറെ വാടകയ്ക്ക് എടുക്കേണ്ട ആവശ്യം വരുകയില്ലല്ലോ ആ ഇല്ല അവർക്ക് മേക്കപ്പ് വരുന്നില്ല ജസ്റ്റ് എന്തെങ്കിലുമൊരു ഫൗണ്ടേഷൻ മാത്രം ഇടാമെന്ന് ഓർത്തു കൊണ്ടാണ് ആ അതെ അതെ ഇവർക്ക് കുറച്ചു പ്രാക്റ്റീസ് കൂടുതലും വേണം കാരണം ഡാൻസൊക്കെ എന്നു പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പ് ഇടാം ഇത് പക്ഷേ കറക്റ്റ് അതുപോലെ തന്നെ ചെയ്യണമല്ലോ പ്രാക്റ്റീസ് നന്നായിട്ട് എടുക്കുകയും ചെയ്യണം മ്മ് അതെ അല്ലേ ഞാൻ അന്ന് ലീവ് ആയിരുന്നു ഞങ്ങൾ ഒരു ഫങ്ക്ഷൻ ഉണ്ടായിരുന്നു അപ്പം അതിന് പോയതു കാരണം അന്ന് ലീവ് ആയിരുന്നു മ്മ് അതെ അല്ലേ ആ ആ എന്നാലും നമ്മൾ പേരൻസിനെ കൂട്ടിമുട്ടിപ്പിക്കാതെ ചെയ്യുന്നത് ആയിരിക്കും നല്ലത് അല്ലേ എല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻസ് ഒക്കെ വരാൻ സാധ്യത ഉണ്ട് അതെ

ആ അതെ അതെ എല്ലാം നല്ലതായിട്ട് അവസാനിച്ചാൽ മതിയായിരുന്നു